എൻ്റെ പ്രിയപ്പെട്ട കായികതാരം എന്ന് പറയുമ്പോൾ ലയണൽ മെസ്സിയാണ് മെസ്സി നല്ല സ്പീടുള്ള പ്ലേയറാണ് കളിയുടെ കാര്യത്തിലാണെങ്കിൽ കളിയുടെ ഗതിതന്നെ മാറ്റാൻ പറ്റുന്ന ഒരു പ്ലേയറാണ് ലയണൽ മെസ്സി അതുപോലെ ഭയങ്കര ഫാൻ ബെയ്സ് ഉള്ള ഒരാൾ തന്നെയാണ് ലയണൽ മെസ്സിന്നു പറയുമ്പോൾ പിന്നെ കളിയിൽ ചെയിഞ്ചസ് ഉണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ് മെസ്സിന്ന് പറയുമ്പോ നല്ല ഡ്രിബിലിങ് സ്കിൽ ഉള്ള വ്യക്തിയാണ് നല്ലപോലെ ഗോൾ കാര്യങ്ങൾ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ലയണൽ മെസ്സി എന്നു നമുക്ക് പറയാം ലെഫ്റ്റ് ലെഗ്ഗിൽ പവറ് ലെഫ്റ്റ് ലെഗ്ഗിലാണ് പുള്ളിൻ്റെ പവറ് കാര്യങ്ങളൊക്കെ കൂടുതൽ എന്നെങ്കിലും അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും അന്ന് എനിക്ക് അങ്ങനൊരു അവസരം കിട്ടിയാ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആരാന്നായിരിക്കും ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നേ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കും പിന്നെ കുറെ സംസാരിക്കണം അതേപോലെ തന്നെ ഓട്ടോഗ്രാഫും മേടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം